ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ തുടങ്ങിയ വെള്ളപ്പൊക്കം പിന്നീട് ഉണ്ടായ അതിശയിത്യമായ വരൾച്ച മഞ്ഞുവീഴ്ച ഡൽഹിയിലും മറ്റിടങ്ങളിലും ഉണ്ടായ വളരെ ഇതായ മഞ്ഞുവീഴ്ച പുക ചുഴലിക്കാറ്റ് ഓഖി പോലുള്ള പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഒരുപാട് എന്താ പറയാ കർഷകർ അതിൽ ധാരാളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്തെന്നു വെച്ചാൽ ഓരോ ഓരോ വർഷവും ഇങ്ങനെ കൃഷി നടത്തി നടത്തി വരുമ്പോൾ അതിൻ്റെ പുറകെ ആയിട്ട് തന്നെ ഈ തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ വളരെ രൂക്ഷമായ വ്യതിയാനങ്ങൾ മാറ്റങ്ങളും ഒരു വർഷത്തെ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ എന്താണൊ കാലാവസ്ഥയുടെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അതിനെ അതിന് ഭയങ്കരമായിട്ടും മറികടന്ന് ഒരു രീതിയിലും വാ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്ത തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിന് കാര്യം തന്നെ പറയുകയാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളെ നാശനഷ്ടങ്ങൾ കേരളത്തിലാകമാനം വന്നിട്ടുണ്ട് അപ്പം അതിലൊക്കെ നമ്മുടെ നാട്ടിലെ കർഷകർ എൻ്റെ നാട്ടിലെ കർഷകർ അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർ എങ്ങനെയാണ് ഇതിനെ തടസ്സങ്ങളെയും കൈകാര്യം ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ കാര്യം കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി വയി വരുന്ന മാറ്റങ്ങൾ അത് അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇവർ വിളവുകളും വിളവുകൾ എടുക്കുകയും നടുകയും ചെയ്യുന്നു അതിനെ മുൻകൂട്ടി കണ്ടാണെങ്കിലും കർഷകർക്കാണെങ്കിൽ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ മുന്നിൽ കാര്യങ്ങൾ ചെയ്ത് എന്നുവേണേ പറയാം പിന്നെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പം കാലാവസ്ഥ വ്യതിയാനത്തിൽ ആണെങ്കിലും ഒരുപാട് മഞ്ഞുവീഴ്ച ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന വണ്ടിയോടിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥകൾ ഉണ്ടാക്കുന്നു ഇപ്പം ഇതിൽ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തടസ്സ അതിനെ അവർ മറികടക്കുന്ന എങ്ങനെ എന്നു ചോദിച്ചാൽ ഓരോ വർഷവും വിളവെടുക്കുന്നത് വിളവ് നട് വിളവെടുക്കുന്നതിനു മുൻപ് ഇത് നടുന്നത് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കും സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോഴ് ചെടികൾ നട്ടുവളർത്തി ആദ്യത്തെ കിളിപ്പിക്കുന്നത് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ക്യാരി ബാഗുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോ ഷോ ബാഗ്സ് അതിനകത്തൊക്കെ വെച്ചായിരിക്കും ഇതിനെ കിളിപ്പിച്ചെടുക്കുന്നത് വളരെ സാവധാനത്തിൽ കിളിപ്പിച്ചെടുത്ത് മഴയുടെ ആ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ വരൾച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏകദേശം ഒന്ന് ഒതുങ്ങിയ ശേഷം ആയിരിക്കും ഇവരിതിനെ മണ്ണിലേക്ക് നടാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം കപ്പ വാഴ മരിച്ചിനി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഒരുപാട് മഴയ്ക്കോ മഴയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി വളരുന്നവയല്ല അത്യാവശ്യം മണ്ണിന് ഫലപുഷ്ടിയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ജലവും അത്യാവശ്യവും വെയിലും എല്ലാം കൂടെ കിട്ടുന്ന ഒരു രീതിയിൽ വളരുന്ന ഇനങ്ങളാണ് കപ്പ വാഴ അവയൊക്കെ പക്ഷേ ആസ്ഥാനത്ത് പയർ വെണ്ട പാവൽ അവയൊന്നും ഒരിക്കലും കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്താതെ വളരില്ല കാരണം പാവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം വെയിൽ പറ്റില്ല അപ്പോൾ കർഷകർ ചെയ്യുന്നത് വെയിൽ ഇല്ലാത്തിടം നോക്കി അത്യാവശ്യം ജലവും അത്യാവശ്യം സൂര്യപ്രകാശവും കിട്ടുന്നിടത്ത് മാത്രം ഇവ നടാൻ ശ്രമിക്കും പിന്നെ പാവൽ പാവൽ അല്ലല്ലോ ഇപ്പം പറഞ്ഞത് പാവൽ അടുത്തത് പറയുകയാണെങ്കിൽ വെണ്ട വെണ്ടയ്ക്കൊന്നും മഴ അത്ര പ്രശ്നമല്ല ഒരു ഒരു വെള്ളം കെട്ടിനിൽക്കുന്ന ഇടത്ത് പോലും വെണ്ട സുലഭമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആസ്ഥാനത്ത് വെയിൽ ആയാലും വെണ്ടയ്ക്കകത്ത് സാധിക്കില്ല അപ്പം വെണ്ട ചെടികള് നടുമ്പോഴും കൂടുതലും മഴക്കാലം വരൾച്ച കാലം വിട്ടിട്ട് മഴക്കാലം അല്ലെങ്കിൽ ശീത സമയം ഉപയോഗിക്കാൻ ആയിട്ട് അല്ലെങ്കിൽ ആ സമയം ഇതെല്ലാം നടാൻ ആയിട്ട് അവർ ശ്രമിക്കും പിന്നെ പറയാണെങ്കിൽ ഏതാണ് നമ്മുടെ പയർ ചെടികൾ പയർ ചെടികളും ഇതുപോലെ തന്നെയാണ് ഒരുപാട് മഴയോ ഒരുപാട് വെയിലോ ഒന്നും പയർ ചെടിക്ക് പറ്റില്ല അപ്പം അതിനായിട്ട് പന്തലിട്ട് അല്ലെങ്കിൽ അതിനെ വള്ളി അത് മറ്റ് മരങ്ങളിലേക്ക് യോജിപ്പിച്ച് അത്യാവശ്യം തണലും അത്യാവശ്യം വെയിലും കിട്ടുന്ന രീതിയിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കർഷകർ അവിടെ ചെയുന്നത് പിന്നെ പറയാണെങ്കിലും കുംഭ മാസത്തിൽ നടുന്ന മണ്ണിനടിയിൽ വളരുന്ന സാധനങ്ങൾ ഏതെന്ന് ഇനങ്ങൾ ഏതെന്നുവെച്ചാൽ ചേന ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള മരച്ചീനി അങ്ങനത്തെ സാധനങ്ങൾ കുംഭമാസത്തിൽ നടന്നു കുംഭം മാസത്തിൽ നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് മഴയോ ഈ മേലിലേക്ക് വരുന്ന ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ തണ്ടുകളും ഒരുപാട് ചീഞ്ഞളിയാതെയോ ശ്രമിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ കർഷകർ ശ്രമിയ്ക്കുക അതോടൊപ്പം തന്നെ വെയിൽ അധികമായിട്ട് ഇതിന് ആവശ്യമാണ് അത്യാവശ്യത്തിന് അധികം വെയിൽ ആവശ്യം അല്ലെങ്കിൽ ഇത് തഴച്ചു വളരുകയോ അടിയിൽ നല്ല രീതിയിലുള്ള ഫലഭൂയിഷ്ട്ടി ആയിട്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടുകയൊ ചെയ്യില്ല അപ്പം അതിന് അവർ ആദ്യം ശ്രമിയ്ക്കുക നല്ല വെയിലും കാലാവസ്ഥയാണ് ഇതിൻറെ എല്ലാ മെയിൻ ഒരു കാര്യം ഘടകം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി തെറ്റി കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത് ഉണ്ടാവുന്നത് പിന്നെ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ സാധനങ്ങളുടെ കാര്യം പറയാണെങ്കിൽ അവ കൂടുതലായിട്ടും കുംഭം തൊട്ട് കർക്കിടക മാസത്തിൽ വിളവെടുക്കും കുംഭമാസത്തിൽ നടുകയും ചെയ്യേണ്ട സാധനം ഇതിന് കൂടുതൽ വെയിൽ വേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ വെയിലും മഴയും ഒരുപാട് ആവശ്യമുള്ള രണ്ട് ഇനങ്ങളാണ് ഇവയൊക്കെ പിന്നെ പിന്നെ പാടത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും വേണ്ടത് നെല്ല് നെല്ലിന് നെല്ല് വിളവ് വിളവെടുക്കുബോഴും നെല്ല് വിതക്കുബോഴും ഏറ്റവും മുഖ്യമായിട്ടും അവർ ശ്രദ്ധിക്കേണ്ടത് വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് വരൾച്ച വരൾച്ച ഒരുക ഒരു കാരണവശാലും പാടത്ത് പടത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പാടുള്ളതല്ല അതുപോലെ തന്നെ അധികമായിട്ട് വരുന്ന പ്രളയങ്ങളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങളോ യാതൊരു കാരണവശാലും നെല്ല് കൃഷി ചെയ്യാനായിട്ട് വിളവെടുക്കാൻ ആയിട്ടും സാധ്യമല്ല കാരണം പാടത്തിൽ നമ്മുക്കറിയാം തനതായ കൃഷി തരമാണിത് ഇതിന് തനതായ വെയിലും അല്ലെങ്കിലും മഴയും അത്യാവശ്യത്തിന് അധിക അധികമായാൽ രണ്ടും പറ്റില്ലാത്ത ഒരു ഇനം തന്നെയാണ് നെല്ല്